ഹലോ എടാ തോമസ് കുട്ടി ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു നീ ഇന്നലെ ആ പിന്നെ വാ അവിടുന്ന് ആ നെടുമ്പാശ്ശേരി പോഴപ്പോഴത്തേക്ക് ആ ആ ആ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോയായിരുന്നല്ലോ ആ ആ പാര്ട്ടിയുടെ നമുക്ക് ഒരു പരിപാടിക്ക് പോകാനായിരുന്നു അവൻ എങ്ങനെ ഉണ്ട് ആ പുള്ളി നല്ല പരിപാടി ആയിരുന്നു നല്ല ഇടപെടൽ ആയിരുന്നെന്ന് പറയുന്നത് കേട്ടു കുഴപ്പം ഇല്ലല്ലൊ നമ്മുടെ ആവിശ്യത്തിനപ്പം മറ്റ് കുഴപ്പങ്ങൾ ഒന്നും ഇല്ലല്ലോ നമുക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ നല്ലതല്ലെ പുള്ളിയുടെ റേറ്റിംഗ് ഒക്കെ കുറവായിരുന്നൊക്കെ പറയുന്നു സേഫ് ആയിട്ട് എത്തിക്കും അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ അപ്പം ആ പുള്ളിയുടെ നമ്പരൊന്നു തരണെ ഞാനാ പുള്ളി ആയിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കില് നീയൊന്ന് വിളിച്ച് പറഞ്ഞാലും മതി അല്ലെ എനിക്കാ പ് പുള്ളിയുടെ നമ്പര് തന്നാൽ ഞാന് വിളിച്ചോളാം ഞാന് പോകുന്ന സമയം കാര്യങ്ങളുവൊക്കെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് ആള് കുഴപ്പം ഇല്ലാന്ന് ഉള്ളതല്ലെ നിന്റെ അഭിപ്രായം എന്തുവാ ആ എന്നാൽ പിന്നെ ഞാനാ ആ നമ്പരൊന്ന് എനിക്കൊന്ന് അയച്ച് തരണെ ഞാൻ ആ പുള്ളിയെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളാം ഞാന് സംസാരിച്ചിട്ട് നമ്മുടെ ആവിശ്യത്തിന് നമുക്ക് ഒന്ന് ഒരു സ്ഥലം വരെ പോകാനായിരുന്നു അപ്പം അത് രണ്ട് ദിവസത്തിനകത്ത് വെച്ച് വേണം ശരി ഓക്കെ